എൻ്റെ സെക്കൻഡ് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹെയർ ജെല്ലാണ് ഞാൻ ഹിമാലയേൻ്റെ ഹെയർ ജെല്ലാണ് യൂസ് ചെയ്യുന്നത് കുറെ പേര് യൂസ് ചെയ്തിട്ട് എന്നോട് പറഞ്ഞു അത്ര നല്ലതൊന്നുമല്ല എന്ന് ബട്ട് ഞാൻ അതൊന്ന് ട്രൈ ചെയ്യാൻ വേണ്ടി മേടിച്ചു നോക്കി അപ്പോൾ ഞാൻ യൂസ് ചെയ്തു നോക്കിയപ്പോൾ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു ഇത് എങ്ങനെ എന്താവും എല്ലാവരും ബാഡ് കമന്റാണ് പറഞ്ഞത് അപ്പം എനിക്ക് എങ്ങനെ ഉണ്ടാകും ഇത് എന്നൊക്കെ കുറെ എക്സൈറ്റ്മെന്റിലായിരുന്നു ഞാൻ ഉണ്ടായിരുന്നത് അപ്പോൾ ഞാൻ ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ മാറ്റം കാണും എന്നൊക്കെ ഞാൻ വിചാരിച്ചു പക്ഷേ എൻ ഒരു മാറ്റവും ഉണ്ടായില്ല ഡാൻഡ്രഫ്സൊക്കെ കൂടുതൽ ആവുകയാണ് ചെയ്തത് എൻ്റെ തല ഭയങ്കര എന്താ പറയുക ബാഡ് ഇതിലേക്ക് പോയി അതായത് മുടി നന്നായിട്ട് കൊഴിയാൻ തുടങ്ങി മുടിയുടെ കാര്യത്തിലൊക്കെ ഭയങ്കര സീനായി തുടങ്ങി അതായത് മുടി കൊഴിച്ചിൽ കൂടുതലാവാൻ തുടങ്ങിയതും ഡാൻഡ്രഫ്സ് കൂടുതലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മുടിയിക്ക് ഒരു എന്താ പറയുക ഈ ഒന്നിനും യൂസ്ഫുൾ അല്ലാത്ത ഒരു പ്രോഡക്റ്റ് ആയിപ്പോയി പിന്നീട് എനിക്ക് തോന്നിപ്പോയി അത് വാങ്ങണ്ടായിരുന്നു എന്ന് കാരണം കുറെ പേര് എൻ്റെ അടുത്ത് നെഗറ്റീവ് കമൻ്റസ് പറഞ്ഞപ്പോൾ തന്നെ ഞാനത് ഒഴിവാക്കേണ്ടതായിരുന്നു പിന്നെ എനിക്ക് എൻ്റെ ഒരു ഇതില് എക്സൈറ്റ്മെന്റിലും കാര്യങ്ങളിലൊക്കെയാണ് ഞാൻ അത് വാങ്ങിയത് പക്ഷേ ഇപ്പോൾ വാങ്ങണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നുണ്ട്